ആ മേഡം ഇത് സൂപ്പർ മാർക്കറ്റല്ലേ ആ ഓക്കെ മേഡം ഞാനേ ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ എന്തിനൊക്കെയാണ് ഓഫർ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ വെജിറ്റെബിൾസിനാണോ ആ പിന്നെ എന്തിനകത്ത് എന്താ മേഡം ആ ഓക്കെ ഓക്കെ നമ്മുക്ക് മറ്റേ ഇതിനൊക്കെ ഷുഗറ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ടോ

ഉണ്ടല്ലേ ആ ഓക്കെ മേഡം നമ്മളിപ്പോൾ പർച്ചേസിന് വരുമ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ അയച്ചാൽ മതിയല്ലേ ആ പിന്നെ നമുക്ക് ഇപ്പോൾ ബൾക്കായിട്ട് എന്തെങ്കിലും ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോം ഡെലിവെറി എന്തെങ്കിലും ഉണ്ടാകുമോ ഹോം ഡെലിവറിയുണ്ട് അതിന് നമ്മൾ അഡിഷണൽ ചാർജ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ ചെയ്യാൻ പറ്റും അല്ലേ ആ ഓക്കെ പിന്നേ നമുക്ക് ഫിഷ് ഐറ്റംസ് വരുന്നുണ്ടല്ലേ നമുക്ക് എന്തൊക്കെ ഫിഷാണിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ചിക്കനുണ്ടല്ലേ

ബൾക്ക് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഫിഷൊന്നും അധികം യൂസ് ചെയ്തിരുന്നില്ല നമുക്ക് ഫ്രൂട്സ് ഐറ്റംസോ അങ്ങനെയെന്തെങ്കിലുമൊക്കെ വേണ്ടി വരും ഇപ്പോൾ നമുക്ക് ഫ്രൂട്സ് ഉണ്ടല്ലേ അതിനിപ്പോൾ ഓഫറ് വരുന്നതല്ലേ ആ ഹാ ഹാ ഓക്കേ അപ്പോൾ ഇത് മാഡം എവിടെയാണ് മാന്തവാടി തന്നെയാണോ ഉള്ളത് മാന്തവാടിയിൽത്തന്നെ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ പിന്നേ വേറെയെന്തായിരുന്നു നമുക്ക് വേറേ ഫ്രൂട്സ് വെജിറ്റബിൾസ് റൈസ് എങ്ങനെയാണ് അങ്ങനെ റൈസൊക്കെ വരുന്നുണ്ടോ നമുക്ക് ടെൻ കെ ജിയിൻ്റെ ബാഗായിട്ട് വരുന്നതുണ്ടോ ആണോ ഓക്കെ മാഡം നമുക്കൊരു ടെൻ കെ ജിയുടെ ബൾക്കായിട്ടൊരു ഒരു ഫൈവ് പാക്ക് വേണം അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓഫർ ചെയ്ത് തരാൻ പറ്റുമായിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ

ഓ വാട്സപ്പ് ചെയ്യാം ചെയ്യാം ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി അറിയാൻ പറ്റും അല്ലേ ഓക്കെ മേഡം താങ്ക് യൂ ടൂ പോയിൻ്റ് ഫോർട്ടീൻ